വീട്ടിൽ അതിഥികള് വരികയാണെങ്കിൽ അതിഥികള് ആരാണെന്ന് അനുസരിച്ച് അവരുടെ താല്പര്യ അനുസരിച്ച് വെജിറ്റേറിയനാണെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം നോൺ വെജിറ്റേറിയനാണെങ്കിൽ നോൺ വെജ് എനിക്ക് കൂടുതലായിട്ട് വെജിറ്റേറിയൻ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം ഞാൻ കൂടുതലും വെജിറ്റേറിയനാണ് അത് കാരണം വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഉണ്ടാക്കണേ സാമ്പാറ് അത് ഉണ്ടാക്കും ചോറിനാണെങ്കില് അതിന് അനുസരിച്ചുള്ള കറികളെല്ലാം ഉണ്ടാക്കും ഉള്ളിത്തീയൽ വെള്ളരിക്കതീയൽ അങ്ങനെ ഉള്ള കറികളും പിന്നെ തോരൻ വർഗ്ഗങ്ങൾ അങ്ങനെ സദ്യയാണെൽ കാപ്പി ആണെങ്കിൽ കൂട്ട്കറി കടലക്കറി സ് അങ്ങനത്തെ സാ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട് നമ്മള് എന്തൊക്കെയാണോ വീട്ടിൽ പിന്നെ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് വരുന്നവർക്ക് പല വിഭവങ്ങൾ പായസം വച്ചുകൊടുക്കുന്നവരാണെങ്കിൽ പായസം ഉണ്ടാക്കി കൊടുക്കും പായസം ഉണ്ടാക്കാൻ വളരെ ഇഷ്ടവാണ് അപ്പം പലതരത്തിൽ ഉള്ള പായസമുണ്ട് അതിലെനിക്ക് ഇഷ്ടപെട്ട കടല പയാസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അത് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടാണ് വരുന്നവർക്കും ഭയങ്കര ഇഷ്ട്ടമാണ് കടലപ്പായസത്തിനൊര് പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതനുസരിച്ച് അവരത് ആസ്വദിച്ച് കഴിക്കാറും ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും ആകാറുണ്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് കടലപായസം